ഹലോ നേരത്തെ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നേരായിട്ടിവിടെ വെയിറ്റിങ്ങിലാണ് അപ്പം നിങ്ങളിത് വരെ എത്തിയിട്ടില്ല അപ്പം അതെന്താന്നറിയാൻ വേണ്ടി ഒന്ന് ഞാൻ വിളിച്ചതായിരുന്നു നിങ്ങളിപ്പം എവിടിരി എവിടെയാണ് ഉള്ളത് ആ ഓക്കേ അല്ലാ എന്താ വരാത്തതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു അല്ല ഞാനല്ലേ ആദ്യം ബുക്ക് ചെയ്തത് അപ്പം എൻ്റെടുത്തേക്കല്ലേ ആദ്യം വരണ്ടത് അല്ല ഞാനൊര് അർജൻറ്റുണ്ടായിട്ട് വിളിച്ച എന്താ പറയുക ബുക്ക് ചെയ്തതായിരുന്നു ആ ഓക്കേ ഓക്കേ അല്ല വേഗം വരുവായിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ വേറെ ഓട്ടോയോ എന്തേലും വിളിച്ച് പോകേണ്ടിവരും അല്ല നിങ്ങളൊരു മാനേഴ്സെങ്കിലും കാണിക്കണ്ടേ ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നല്ലേ നിങ്ങള് കറക്ട് ഒരു മണി ആകുമ്പോൾ വരാന്നു പറഞ്ഞത് ഇപ്പം രണ്ടു മണിയായി ഒരു മണിക്കൂറായി ഇവിടെ വെയിറ്റിങ്ങില് ല്ല വരില്ലെങ്കില് ഒന്ന് വിളിച്ചെങ്കിലും പറയാലോ അല്ല അതെന്താ അങ്ങനെ അല്ല നിങ്ങളിപ്പം വരുവോ ഇല്ലയോ എന്താന്ന് തീരുമാനം പറയൂ ആ ഓക്കേ ആ എന്ന വേഗം വാ എന്നാല് അല്ല എനിക്ക് അർജൻറ്റായിട്ട് പോകണ്ട ആവശ്യമുണ്ട് ആ ഓക്കേ വേഗം വാ